മലയാള ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ മലയാളത്തെ പരമാവധി എന്താ പറയുക ആളുകൾ മടുക്കാണ്ടും ആളുകൾ ഒരുപാട് ചിന്തിക്കാൻ വേണ്ടിയും അറിവ് നേടാൻ വേണ്ടിയും മലയാള ഭാഷയെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പണ്ടത്തെ എഴുത്തുകാർ അതായത് എഴുത്തച്ഛൻ വള്ളത്തോൾ കവിത രചിക്കുന്നവർ അങ്ങനെയുള്ളവരെല്ലാം നമ്മുടെ മലയാള ഭാഷയെ ഇപ്പോഴത്തെ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ആയാലും ഇങ്ങനെ പഠിക്കാനൊക്കെ വേണ്ടി എന്താ പറയുക നമ്മുടെ പാഠങ്ങളിലായി ഓരോ പാഠമായി കഥയായി കവിതയായി ഒക്കെ രചിച്ചിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് എന്താ പറയുക മലയാള ഭാഷയിൽ നിന്ന് കിട്ടാനുള്ള അറിവിനും കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടിയായിരുന്നു പിന്നെ ഇത് നമ്മൾ കുറെ പഠിക്കാനും ഉണ്ട് അറിവ് നേടാനും പിന്നെ എന്താ പറയുക പഴയ ഒരുപാട് കഥകളും കവിതകളും എല്ലാം ഇങ്ങനെ ഭാഷകളായും എഴുത്തുകളായും ഒക്കെ നമുക്ക് കാണാനും കേൾക്കാനും വായിക്കുവാനും സാധിക്കുന്നുണ്ട് ഇപ്പോഴും പക്ഷെ ഇപ്പോൾ നമ്മുടെ ഇത് കുറഞ്ഞു വരികയാണ് എന്നാലും നമുക്ക് മാതൃഭാഷ ഒരിക്കലും മറക്കാനും കഴിയില്ല